നേട്ടങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ കുറേ നേട്ടങ്ങളുണ്ട് അതിൽ ആദ്യം തന്നെ എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ പത്താം ക്ലാസ്സിലത്തെ പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോഴാണ് അതിൽ ഏകദേശം അമ്പത്തിമൂന്ന് കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് പരീക്ഷ എഴുതിയിട്ട് അതിൽ ഏകദേശം ഒമ്പതാമത്തെ റാങ്കോടെയാണ് ഞാൻ പത്താം ക്ലാസിലെ സി ബി എസ് ഇ പാസായിട്ടുണ്ടായിരുന്നത് നേരെ മറിച്ച് ഞാൻ പ്ലസ്റ്റൂവിലേക്ക് കടന്നപ്പോഴേക്കും എനിക്ക് ഒന്നൂകൂടി അധികം മാർക്ക് കിട്ടി ഞാൻ പ്ലസ്റ്റൂവിന് എനിക്ക് നൂറ് ശതമാനത്തിന് തൊണ്ണൂറ്റേഴ് ശതമാനം മാർക്കോടെയാണ് പ്ലസ് ടു പാസായിട്ടുള്ളത് അതുകഴിഞ്ഞ് ഇതാ കോളേജിൽ വന്നപ്പോൾ മറ്റു ചില കാര്യങ്ങളിലും എനിക്ക് കുറെ നേട്ടങ്ങളുണ്ടായിട്ടുണ്ട് വെബ് ഡെവലപ്പറായിട്ട് എനിക്ക് ഇവിടെ ഒരു കോമ്പറ്റീഷൻ നടന്നപ്പോൾ അതിനൊരു ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട് തൃശ്ശൂർ പോയിട്ട് പോരാത്തതിന് സ്പോർട്സിൽ ഞാൻ കോളേജ് ചാമ്പ്യനാണ് പിന്നെ കൾച്ചറൽ ആക്റ്റിവിറ്റിയിലും സംഘ ഗാനത്തിന് പോയിട്ട് ഞാൻ ഫസ്റ്റ് മേടിച്ചിട്ടുണ്ട് അതുപോലെത്തന്നെ മറ്റുചില കാര്യങ്ങളും നാട്ടിലുള്ള പ്രവർത്തനങ്ങളിലും എനിക്ക് ചെറിയ നേട്ടങ്ങൾ കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾത്തന്നെ ഡി വൈ എഫ് ഐ ൻ്റെ യൂത്തിൻ്റെ ഒരു ജനറൽ സെക്രട്ടറിയാണ് നമ്മുടെ ഞങ്ങളുടെ ഒരു കൂട്ടം ആൾക്കാരുടെ അതായത് ഞങ്ങളുടെ താലൂക്ക് ഡി വൈ എഫ് ഐൻ്റെ അവിടത്തെ സെക്രട്ടറിയാണ് അതേപോലെതന്നെ മറ്റുചില കാര്യങ്ങളിലും അത്യാവശ്യം നേട്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട്